ഞാനാണെങ്കിൽ എൻ്റെ വീട് അങ്ങനെ എപ്പോഴോന്നും തൂത്തു വാരാറില്ല കാരണം അമ്മയാണ് കൂടുതലും തൂത്തു വാരാറുള്ളത് പക്ഷേ ഞാൻ തൂത്തുവാരാറുള്ളപ്പം എല്ലാം അടുക്കി വെച്ച് എല്ലാം നീറ്റായിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് അപ്പം അങ്ങനെ ഈ സൈഡിലൊക്കെ പൊടിയൊക്കെ ഇരിക്കൂലേ ഈ ഭിത്തി വഴിയൊക്കെ ആണെങ്കിലും അതൊക്കെയാണെങ്കിലും എല്ലാം കളഞ്ഞിട്ട് എല്ലാം അടുക്കി വെച്ചൊക്കെയാണ് ഞാൻ ചെയ്യണത് പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിലും തറയിൽ ചാണകം ഒന്നുമില്ല കാരണം പഴയകാല പഴയ കാലഘട്ടം പോലെയല്ലല്ലോ ഇന്നത്തെ കാലഘട്ടം കാരണം എല്ലാ വീടുകളിലാണെങ്കിലും ടൈൽസ് ഒക്കെ ഇട്ടേക്കുവല്ലേ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീട്ടിലും ടൈൽസ് ഒക്കെ ഇട്ടേക്കുവാണ് പക്ഷേ ചാണകം ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെതായ ഒരു മേന്മയൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും തന്നെ ഉപയോഗിക്കാറില്ല പണ്ടുകാലത്തെ പോലെയൊന്നും അല്ലല്ലോ ഇപ്പം അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയുള്ള രീതിയിലൊക്കെ ടൈൽസ് ആണ് കൂടുതലും എല്ലാ വീടുകളിലും